ഇപ്പോൾ സാങ്കേതികവിദ്യ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യുട്ടർ ലാപ്ടോപ്പ് മൊബൈല് ഫോൺ ഇതൊക്കെ സാങ്കേതികവിദ്യയുടെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മൊബൈല് ഫോണിന്റെയും ലാപ്ടോപ്പിന്റെ ഒക്കെ വളര്ച്ചയുടെ കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് വരുന്നത് ഇപ്പം മലയാള ഭാഷ എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയാണ് അപ്പം നമുക്ക് സാങ്കേതികവിദ്യയുടെ വളര്ച്ചമൂലം മലയാള ഭാഷ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോളാരും തന്നെ ലൈബ്രറികളില് പോയിട്ട് വായിക്കുകയോ പത്രങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം എല്ലാം മൊബൈലിലൂടെ ആണ് കേള്ക്കുന്നത് കേള്വികൊണ്ട് മാത്രമേ ഇല്ലെങ്കില് കാഴ്ചകൊണ്ട് മാത്രമേ ഇന്ന് മലയാളികൾ മലയാളത്തെ ഓര്ക്കുന്നുള്ളൂ മലയാളം എന്ന ഭാഷ നമ്മുടെ മാതൃഭാഷയാണെന്ന് എല്ലാവരും മറന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം മൊബൈലിലൂടെ വരുന്നതെല്ലാം ഇംഗ്ലീഷിലാണ് കുടൂതലായിട്ടും ആള്ക്കാർ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത് ഇല്ലെങ്കില് കേള്ക്കുന്നത് അപ്പം മലയാളം നമ്മളെ വിട്ടു പിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്